അതേ വേറൊരു കൺസ്ട്രഷന്റെ തിരക്കിൽ ആയിപ്പോയി അപ്പോഴാണ് വർക്ക് വന്നത് ഓ ഓക്കെ ചെയ്യാമല്ലോ ആ അത് ചെയ്യാം ഹോളോ ബ്രിക്സിൽ അതേ അതെ നല്ലത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര വലിപ്പം എന്താണ് സൈസ് സ്ക്ക്വയർ ഫീറ്റ് എത്ര വേണം ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മറ്റേ മെറ്റീരിയലൊക്കെ നിങ്ങളടിക്കുന്നുണ്ടോ അതോ കോൺട്രാക്ട് പോലെ ചെയ്യുകയാണോ ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ടെല്ലാം അതിന്റെ ഒരു റേറ്റ് പറയാം ആ ഓക്കെ ഓക്കെ ഓക്കെ ഷീറ്റ് ഷീറ്റിടാം പിന്നെയത് മഴ എന്തെങ്കിലും മഴ കൊള്ളാൻ പറ്റാത്ത അങ്ങനെന്തെങ്കിലും സ്റ്റോറി ആണെങ്കിൽ വാർത്തിടുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് ആ അതിന് അതിന് ഒരു അഞ്ച് റൂമ് എന്ന് പറയുമ്പോഴൊരു ഒരു പത്ത് അഞ്ച് ചാക്ക് സിമെന്റും മതിയാവും നട്ടൊരു ഒരു നാല് യൂണിറ്റ്

ഇല്ലല്ലോ മറ്റേതിപ്പോൾ കിട്ടാനില്ല എം സാൻഡ് തന്നെയാണ് ഇപ്പം നല്ലത് അതും ഇതുപോലെ തന്നെ നാല് യൂണിറ്റ് ബാക്കി നമുക്ക് നോക്കിയിട്ട്

ഓ അതെ നമുക്കറിയുന്ന ആളുണ്ട് പിന്നെ നിങ്ങൾക്ക് റേറ്റ് ഓക്കെയാണെങ്കിൽ നമുക്കതിൽനിന്നെടുത്ത് തന്നെ ചെയ്യാം

ഓ അതൊക്കെ ചെയ്തു തരാം പിന്നെ ഇതിന്റെ പ്ലാൻ എന്തെങ്കിലും നിങ്ങൾ ആക്കിയിട്ടുണ്ടോ അതോ ഓ അത്രയേ ഉള്ളു അപ്പോൾ അത് നമുക്ക് ശരിയാക്കാം

ഓക്കെ അപ്പോൾ അത് അത് റെഡിയാക്കി തരാം കുഴപ്പമില്ല കേട്ടോ ഡോറ് ആ ഫൈബർന്റെ ഡോറ് വച്ചാൽ മതി കാരണം സ്റ്റോറൂമല്ലേ വലിയ കാര്യമില്ല ഇല്ല നമുക്കത് അങ്ങനെ കടക്കാത്ത രീതിയ്ക്ക് ചെയ്യാം ബഡ്ജറ്റ് അത് നമുക്ക് നോക്കിയിട്ട് പറയാം ആ ഏകദേശമൊരൂ ഒരു ഉറുപ്പികേന്റെ താഴെ ആ ഇതിപ്പോഴൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും കഴിയും അത് കഴിഞ്ഞിട്ട് വരാം ഇതിപ്പോൾ ഒരു ചെറിയ റൂമല്ലേ ഒരു മൂന്നു ദിവസം നാലുദിവസം കൊണ്ടു തീർക്കാം ഏയ് വേണ്ട വേണ്ട ഞാനവിടെ വന്നിട്ട് നമുക്ക് സംസാരിക്കാം